അതെ ഞാനവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വരാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാനവിടെ വന്ന സമയത്ത് നിങ്ങളെന്നോട് പറഞ്ഞത് രീതിക്കല്ല നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ സേവനം വളരെ മോശമാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡേറ്റ് നിങ്ങളെന്നോട് പറഞ്ഞത് പറഞ്ഞ ഡെയ്റ്റില് പറഞ്ഞ സമയത്ത് വരുമെന്നാണ് പറഞ്ഞത് ഈ നേരംവരെയും ഡ്രൈവറേയോ ക്യാബ് ഇവിടെ കണ്ടിട്ടില്ല നിങ്ങളുടെ സേവനം അതുപോലെ നല്ലതാണെന്ന് ഒരുപാട് പറഞ്ഞിട്ടും ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കീട്ടാണ് ഞാൻ അവിടെ വന്ന് ക്യാബ് ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സേവനം ഇത്രയ്ക്ക് മോശമാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ സമീപിക്കത്തില്ലായിരുന്നു എനിക്കിപ്പോൾ എന്താ ഒരുപാട് ജോബ് സ്ട്രെസ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെയായിട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ഈ സ കറക്റ്റ് സമയത്ത് നിങ്ങൾ വരാത്തതുകൊണ്ടും ഇത്രയും നേരമായിട്ടും ഒരു കോണ്ടാക്ട് ഇല്ല ഒന്ന് വിളിച്ചിട്ടു പോലും ഇല്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ കോള് കട്ടെയ്ത് വിടുന്നു ബിസിയാണെന്ന് പറയുന്നു ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയ്ക്കാണ് നിങ്ങളുടെ സേവനം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ലായിരുന്നു നിങ്ങള് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പേമെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്വാൻസ് ഇനിയിപ്പോൾ അത് എനിക്ക് തിരിച്ച് തരണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ അങ്ങ് അത് മാറ്റി വച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ രീതിയിലുള്ള മോശം സേവനം കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ഇത് ആവർത്തിക്കരുത് അതുകൊണ്ട് നിങ്ങളെപ്പറ്റി ബാഡ് റിവ്യൂസ് തന്നെ ഞാൻ പറയും അപ്പോൾ ഇതാവർത്തിക്കരുതേ ഞങ്ങൾക്ക് എത്രേയും പെട്ടെന്ന് തന്നെ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു തിരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇത്തിരി തമാസിച്ചാണെങ്കിലും ഞങ്ങൾക്ക് വേറൊരു വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡ്രൈവറേയും ക്യാബും തരിക അധികം താമസിക്കാതെ തന്നെ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ തരണം തന്നില്ലെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾ ബാഡ് റിവ്യൂസ് തന്നെ പറയും ണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു നല്ല റെസ്പോണ്ട് കിട്ടണം ഓക്കെ താങ്ക് യൂ